ഹലോ ആ സാർ ഞാൻ മ്മ് കോളേജിലെ അനീറ്റ വർഗീസ് ആണേ ആ സാറെ എൻ്റെ ഐ ഡി കാർഡ് മിസ്സ് ആയി പോയായിരുന്നു അപ്പം എനിക്ക് പുതിയൊരു ഐ ഡി കാർഡിന് വേണ്ടിയിട്ടായിരുന്നു ആ അപ്പം മ്മ് ഐ ഡി കാർഡ് എൻ്റെ എൻ്റെ കയ്യിൽനിന്ന് കളഞ്ഞ് പോയതാണ് അപ്പം പുതിയ ഐ ഡി കാർഡിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് എവിടെ പോയി എന്ന് അറിയത്തില്ല ആ വരുന്ന വഴിക്ക് ആണ് പോയത്

മ്മ് സാർ അബദ്ധത്തിൽ കളഞ്ഞ് പോയതാണ് സാർ സാർ ഫൈൻ ഇല്ലാതെ എന്തെങ്കിലും വഴിയുണ്ടോ ഇനി ആവർത്തിക്കത്തില്ല സാർ സാർ ഇരുന്നൂറിന് പകരം നൂറ് അടച്ചാൽ മതിയോ ആ സോറി സാർ ഇനി ഇനി ഇങ്ങനെ സംഭവിക്കത്തില്ല ഐ ഡി കാർഡ് ഇല്ലാതെ ക്ലാസിൽ കയറ്റത്തില്ലെന്നും പറഞ്ഞു സാർ ഫൈൻ ഒന്ന് കുറച്ചുതരാവോ മ്മ് സാർ ഐ ഡി കാർഡ് ഐ ഡി കാർഡ് കിട്ടുന്നത് വരെ ഞാൻ ക്ലാസിൽ കയറുന്നത് എങ്ങനെയാ

ആ ഓക്കെ സാർ താങ്ക് യൂ